ആ ഞാൻ സിംഗപ്പൂരു നിന്നായിരുന്നു എനിക്ക് കേരളം കേരളത്തെക്കുറിച്ചു കുറച്ചറിയണമെന്നുണ്ട് കേരളം എന്തുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രിന്നു വിളിക്കുന്നത് കേരളത്തിൽ ഞാൻ മെയിനായിട്ട് വയനാടാണ് നോക്കുന്നത് അപ്പോൾ അവിടെയുള്ള തെയ്യവും കാര്യങ്ങളുമൊക്കെ എങ്ങനാണെന്നു പറഞ്ഞുതരാമോ

ഓക്കേ അപ്പോൾ എനിക്ക് അധികം ഞാൻ ബോട്ടിങ്ങും ഫിഷിംഗും ഒക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് ഓക്കേ അപ്പം നല്ല റിസോർട്ടും കാര്യങ്ങളുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെങ്ങോട്ട് പോകണം ഈ കോട്ടയത്തൊക്കെ കിട്ടുമോ ഈ നീലഗിരി നാഷണൽ പാർക്കെന്നു പറയുന്നത് മൂന്നാറാണോ ഇരളി ഛെ ഇരവികുളം നാഷണൽ പാർക്കോ ഓക്കേ അവിടെപ്പോകാൻ ഫീസും കാര്യങ്ങളുമൊക്കെ എങ്ങനാണ് ആ ഓക്കേ താങ്ക് യൂ എനിക്ക് ഇത്രേം കാര്യങ്ങളാണ് അറിയാനുണ്ടായിരുന്നത് ഇല്ലില്ല ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നതായിരിക്കും ഓക്കേ